ഒരു എക്കൗണ്ട് എടുക്കാനായിരുന്നു

ഇല്ലില്ല ആദ്യമായിട്ടാണ് അ അ ഇല്ല ഇല്ല

ആണ് ഉണ്ട് ഉണ്ട് ഉണ്ട്

അ അ

അല്ല ബാലൻസെയുന്നുണ്ട്

ഓക്കെ ഓക്കെ

എപ്പളാണ് വരണ്ടത്

ഓക്കെ ഓക്കെ ഓക്കെ

ഓ അതൊക്കറിയാം അ ഞാൻ അ അ ഞാൻ കോണ്ടാക്ട്റ്റെയ്യുന്നുണ്ട് ഓക്കെ ഇല്ല ഇല്ല അല്ലാണ്ട് നാളെവന്നാൽ